ഞങ്ങൾ പുതിയ വീട് പണിഞ്ഞത് ആണ് അപ്പം അതിന് ടാങ്ക് പതിനഞ്ചായിരം ലിറ്ററിൻ്റെ ടാങ്ക് വയ്ക്കണമായിരുന്നു അപ്പം അതിൻ്റെ അയ് അത് എത്ര രൂപയാവും അത് വീട്ടി വീട്ടിൽ വയ്ക്കണോ അതോ വെളിയിൽ വയ്ക്കണോ അങ്ങനെ ഡീറ്റെയിൽസ് കേൾക്കാൻ വന്നതാണ് ഒര് ഒര് നില ആണ് വീട് ആ വാർപ്പ് ഒക്കെ കഴിഞ്ഞു മേലെ ഇല്ല ഇല്ല പ്ലെയിൻ ആക്കി തന്നെ ഇടാനാണ് ആ ആ അതെ സിമൻറ്റ് ഇട്ട് പണിയാൻ

അല്ല ഞങ്ങളുടെ അടുത്തുതന്നെ ആണ് കിണർ അല്ല അല്ല സാദാ ഒരേ അളവാണ് മ് മോട്ടർ ഒക്കെ ഉണ്ട് ഞങ്ങൾ മോട്ടർ ഉപയോഗിക്കാറുണ്ട് ആ അതെ അതിനൊക്കെ എത്ര രൂപ ആവും ആ അതെ

ഓ ശരി ഇത് ഇല്ലേ ഞങ്ങൾക്ക് രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ പാൽ പാൽ കാച്ചൽ വയ്ക്കാൻ പോവാണ് അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തീർത്തുതരണം

ഓ ഓ ഓ

ഓ ശരി ശരി ആ അതെ അതെ സ്ട്രോംഗ് ആയിരിക്കുമല്ലോ

ഓ ശരി ശരി എംപ്ലോയീസ് നിങ്ങൾ തന്നെ കൊണ്ട് വരുവോ അതോ എംപ്ലോയീസ് നിങ്ങൾ തന്നെ കൊണ്ട് വരുവോ അതോ ഞങ്ങൾ ഇവിടെനിന്ന് ആരുടെ എങ്കിലും ഒക്കെ വിളിച്ച് ഏർപ്പാട് ആക്കേണ്ടി വരുവോ ഓ ശരി ശരി അല്ല നിങ്ങൾ തന്നെ കൊണ്ട് വരുന്നതാണ് നല്ലത് ഞങ്ങൾ എല്ലാത്തിൻ്റെയും കൂടി പൈസ തരാം അല്ല സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ മ് ഓ ഓ ശരി ശരി അതൊക്കെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല

ഓ ശരി ശരി ഓ ശരി ശരി ശരി ആ ശരി ഓ ശരി ആ ശരി ആ ശരി ശരി ആ